ഹലോ ആ ഞാൻ ഇന്നലെ ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ല അത് കറക്റ്റ് സമയത്തെത്തി അതൊന്നും കുഴപ്പല്ല പക്ഷേ എനിക്ക് അതിനകത്ത് കുറച്ച് ചീത്ത കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെനിക്ക് എന്താണ് പറയുക എനിക്ക് എനിക്ക് മോശമായിട്ടുള്ള രീതിയിലാണ് അത് തോന്നിയത് അപ്പോൾ അത് നിങ്ങളെയൊന്ന് പറയാം എന്ന് കരുതി അല്ല അങ്ങനത്തെ ഒരു കാർ വിടുമ്പം നിങ്ങൾ ഒന്ന് എന്തെങ്കിലും സൂക്ഷിക്കുക എന്തെങ്കിലും ഒക്കെ ഒന്ന് ചെയ്യണം കാരണം നമ്മളൊരു യാത്രക്കാരല്ലേ ആ അതെ അതെ പക്ഷേ എന്നാലും നിങ്ങൾ ഒന്ന് സൂക്ഷിച്ചാൽ മതിയായിരുന്നു ആ അതിന്റെ ബാക്കിലെ ടയർ പഞ്ചർ ആയി പോകുന്ന വഴിക്ക് നമ്മൾ കുറേ നേരം വഴിക്ക് നിന്നു ടയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റ അവസ്ഥയുള്ള ടയർ നൂലുവരെ കണ്ടു അതിൻ്റെ പക്ഷേ നിങ്ങൾ അങ്ങനെ നൂല് ഉള്ളൊരു ടയറും വെച്ചിട്ട് ആ വണ്ടി ഓടുന്നത് ഒന്ന് നിങ്ങൾ ഒന്ന് നോക്കണമായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ ആൾക്കാരുടെ ജീവൻ വെച്ചാണ് നമ്മൾ കളിക്കുന്നത് അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു അല്ല അല്ല ബാക്കിലെ ടയർ രണ്ടും മൊട്ട ടയർ ആയിരുന്നു പോകുന്ന വഴിക്ക് എന്തോ ഭാഗ്യത്തിന് ഒന്നും സംഭവിച്ചില്ല കാരണം പുള്ളിയങ്ങനെ വണ്ടി തിരിച്ചങ്ങനെ നിർത്തി പക്ഷേ പുള്ളിനെ എനിക്കെന്തെങ്കിലും പറയണം ഞാൻ എന്തെങ്കിലും പറയുവേം ചെയ്തുപോയേനെ പിന്നെ ഒന്നും പറഞ്ഞില്ല എനിക്ക് ദേഷ്യം വന്നു പക്ഷേ ഞാൻ മിണ്ടാണ്ടിരുന്നു പുള്ളി തന്നെ അഴിച്ച് ടയർ ഒക്കെ മാറ്റി പക്ഷേ എന്നാലും എൻ്റെ സമയത്തിന് എനിക്കൊരു വിലയുണ്ടായിരുന്നു നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു പിന്നെ അതിൻ്റെ ഹോൺ മര്യാദയ്ക്ക് വർക്ക് ചെയ്യുന്നില്ല വളവിൽ നിന്നൊക്കെ ഹോൺ അടിച്ചുകഴിഞ്ഞാൽ അപ്പുറത്തുള്ളവൻ കേൾക്കുന്നത് പോലുമില്ല എവിടുന്ന് നമുക്ക് ഉള്ളിലിരിക്കുന്നവന് കേൾക്കുന്നില്ല പിന്നെയാണ് പുറത്തുള്ളവന് കേൾക്കുന്നത് അപ്പോൾ ഹോൺ മര്യാദയ്ക്ക് പ്രവർത്തിക്കുന്നില്ല പിന്നെ അതിന്റെ ബാക്കിലെ സീറ്റ് എല്ലാം ഫുൾ കീറിയിട്ടാണ് അതിൽക്കൂടെ പഞ്ഞി ഇങ്ങനെ പുറത്തേയ്ക്ക് വരുന്നുണ്ട് എൻ്റെ മേത്ത് എൻ്റെ ഡ്രെസ്സിൽ മൊത്തം പഞ്ഞിയായിരുന്നു അപ്പം നിങ്ങൾ മര്യാദയ്ക്ക് ആ വണ്ടി നോക്കാത്തത് കൊണ്ടുള്ള പ്രശ്നം ആണെന്നാണ് ആ ഡ്രൈവർ അടക്കം പറഞ്ഞത് അല്ല ആ ഡ്രൈവർ അങ്ങനത്തന്നെയാണ് പറഞ്ഞത് അല്ല ആ അതെ ആ അപ്പം നിങ്ങൾ മര്യാദയ്ക്ക് വണ്ടി നോക്കുവാണെങ്കിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല എനിക്ക് ഇനി ഞാനൊരു വണ്ടി ഇങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല രീതിയിലുള്ള വണ്ടി കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇനി എന്താണ് പറയുക ഒരു കംപ്ലൈന്റോ കാര്യങ്ങളോ കൊടുക്കും പിന്നെ ഇതിന് ഫീഡ്ബാക്ക് നിങ്ങൾക്ക് പിന്നെ വേറെ ആരെയും കിട്ടാത്ത രീതിയിൽ ഫീഡ്ബാക്ക് ഞാൻ കൊടുക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് കസ്റ്റമർ പോവാണ്ടെ ഇരിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അപ്പം വണ്ടി നന്നായിട്ട് സൂക്ഷിക്കുക